ധ്യാനത്തിൽ നമുക്കു പത്തു മിനിറ്റ് നേരമേ കണ്ടിന്യൂസിരിക്കാൻ പറ്റത്തുള്ളൂ ആദ്യമായിട്ടിരിക്കുമ്പോള് ആൾക്കാർക്കു ശബ്ദം ഭയങ്കരമൊരു പ്രശ്നമാണ് പിന്നെ ഓരോ ഓരോരോ ശബ്ദങ്ങള് നമുക്കു ഭയങ്കര അസ്വസ്ഥതയുണ്ടാക്കും പിന്നെയുള്ളത് നമ്മുടെ സ്ട്രെസ്സുകള് നമുക്ക് എന്തെങ്കിലും ടെൻഷനുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നേരമൊന്നും ധ്യാനിക്കാനൊന്നും പറ്റത്തില്ല അതിന് റിലാക്സാകാൻ വേണ്ടിയിട്ടല്ലേ അപ്പോള്പ്പിന്നെ വെളിയില്നിന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും നമുക്ക് പത്ത് മിനിറ്റ് തന്നെ ഭയങ്കര പാടാവും അത് കുറേ ഇതായി കഴിയുമ്പോഴത്തേക്കു പത്ത് മിനിറ്റൊക്കെ ശാന്തമായിട്ടിരിക്കാനായിട്ടു സാധിക്കും ആദ്യത്തെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതലുള്ളതു ശബ്ദം തന്നെയാണ് വെളിയിലത്തെ ശബ്ദം അത് അടച്ചിട്ടു കഴിഞ്ഞാലും നമുക്ക് വെളിയിലെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസൊക്കെ കാരണം അതൊക്കെ ഇങ്ങനെ നമ്മുടെ നമ്മടെ ഉള്ളിലേക്കിങ്ങു വരും അത് ശബ്ദം തന്നേ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നങ്ങള്